ആ ഇത് ടൂറിസ്റ്റ് ഗൈഡ് അഭിജിത്ത് അല്ലേ അത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് നമ്പറ് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും പോണ്ടിച്ചേരിയിൽ ഒരു പത്ത് ദിവസത്ത ടൂറിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അവിടത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഹോട്ടൽ സൗകര്യങ്ങളും ബാക്കി പാക്കേജിൽ എന്തൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്

അതെ ചെറിയ കുട്ടികളാണ് ഒന്നര വയസ്സും നാല് വയസ്സും ഉള്ള രണ്ട് കുട്ടികളാണ് അല്ല നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളെ പത്ത് ദിവസത്തെ പ്രൈസ് എങ്ങനെയാണ് കൂടുതൽ അതിൻ്റെ എത്ര ആണ് ഒരു പത്ത് ദിവസത്തേക്കോ അല്ല അപ്പോൾ പോണ്ടിച്ചേരിയിൽ മെയിനായിട്ട് ഏതൊക്കെ പ്ലേസ് ആണ് ഹിറ്റ് ചെയ്യുന്നത് കുറച്ച് കുട്ടികൾക്കും നമ്മൾ അഡൽറ്റ്സിനും കൂടി രണ്ട് പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലോട്ടൊക്കെ

നിങ്ങളുടെ ഹോട്ടൽ ആ സാർ അതോ ഹോട്ടൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് ത്രീ സ്റ്റാർ ആണോ ഫൈവ് സ്റ്റാർ ആണോ എങ്ങനെയാണ് തെർട്ടി തെർട്ടി ഫൈവ് തൗസൻഡ് അത് ഫൈവ് സ്റ്റാറ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അതെ അപ്പോൾ പത്ത് ദിവസമെന്ന് പറയുമ്പോൾ പത്ത് ദിവസത്തെ ആ ഡേ നൈറ്റ് അല്ലേ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വിളിക്കാം ഒരു കോള് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അഞ്ച്